ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷെയർ മാർക്കെറ്റെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നിക്ഷേപിച്ച് കഴിഞ്ഞാല് അതില് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ആപ്പ് ഉണ്ട് ഇപ്പോൾ കുറെ ആപ്പുകള് ഷെയർ മാർക്കറ്റിൻറ്റെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് മണി ചെയിൻ പോലെ ഇങ്ങനെ അപ്പം ഈ ഡോളറിന് വില കൂടുന്നതിന് അനുസരിച്ച് നമ്മുടെ ക്യാഷ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത് പക്ഷേ ചില സമയത്ത് കിട്ടുന്നവര് ഉണ്ടാകാം പക്ഷേ നമുക്ക് അതൊരു ഓപ്ഷണൽ ആണ് പക്ഷേ ഭയങ്കര അപകട സാധ്യത അതിനകത്ത് കൂടുതലാണ് നമ്മളിപ്പം ആദ്യം ഒരു പത്തോ ഇരുനൂറോ ഇട്ടുകഴിഞ്ഞാല് നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പോൾ അത് നാനൂറായിട്ട് നമുക്ക് അതിൻ്റെ ഇരട്ടി കിട്ടുമായിരിക്കും പിന്നെ നമുക്ക് ഇൻറ്ററസ്റ്റ് കയറിയിട്ട് നമ്മളെന്താണ് ചെയ്യുക വീണ്ടും വീണ്ടും ഇട്ട് കൊണ്ടിരിക്കും അങ്ങനെ നമ്മള് വലിയ എമൗണ്ട് ഇട്ടുകഴിഞ്ഞാല് ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പം അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു ലക്ഷം രൂപയൊക്കെ ഇട്ടിട്ട് എന്നുവെച്ചാൽ പെട്ടെന്ന് അത് ഇടിഞ്ഞുപോയി ഡോളർ ഇങ്ങനെ ഇടിഞ്ഞുപോയി അപ്പം നമ്മുടെ പൈസ മൊത്തം മൈനസ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആ എമൗണ്ട് കയ്യില് നമ്മുടെ കിട്ടുകയില്ല ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര അപകട സാധ്യത ഉള്ളതാണ്